ഹലോ ഇത് റെസ്റ്റോ ഞങ്ങളിവിടെ താമസിക്കാൻ വരാൻ വേണ്ടിയാരുന്നേ അപ്പോൾ അവിടത്തെ ഇതില് റൂംസും എല്ലാം ഞങ്ങൾക്ക് വേണം അത് ഇപ്പോൾ അതിൻ്റെ റെന്റും കാര്യങ്ങളൊക്കെയൊന്ന് പറയാവോ ഞങ്ങളൊരു നാലഞ്ച് പേരാണ് ഞങ്ങള് കുടുംബത്തോടാണ് വരുന്നത് ഞങ്ങളൊര് ആറേഴ് ദിവസത്തെ ഇതാണ് തീരുമാനിച്ചേക്കുന്നത് ആ ആ ആ അപ്പം ഞങ്ങൾക്കവിടുത്തെ ഫുഡുകളും അതൊക്കെയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് അറിയണ്ടത് അവിടുത്തെ എങ്ങനുണ്ട് ഫുഡുകളെല്ലാം

ആ എങ്ങ നിങ്ങളുടെ വെറൈറ്റി എങ്ങനത്തെ മീനൊക്കെയാണ് വരുന്നത് സീ ഫുഡ് അങ്ങനത്തെയൊക്കെ ആണോ പിന്നെ ഞണ്ട് അങ്ങനത്തെ ആ

ഞങ്ങടെ കരിമീന് മറ്റേ ചെമ്മീന് അങ്ങനത്തെ മോഡലൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മോഡലുണ്ടോ നിങ്ങളുടെ അവിടെ

ഉണ്ടല്ലേ അപ്പം അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് വരുന്നത് ഓ അത്രോള്ളല്ലേ ആ അപ്പം നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല ഫൂഡ് ക്വാളിറ്റി എല്ലാം വേണം മീനുകൾക്കാണേ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് വേണം ഏറ്റവും കൂടുതല് ഞങ്ങൾക്ക് വേണ്ടത് സീ ഫുഡാണ് ഞങ്ങൾക്ക് വേണ്ടത് ഏറ്റവും കൂടുതല്

ആ ഓക്കെ താങ്ക്യു